പത്രം വായിക്കാൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഒരു എൽ കെ ജി ക്ലാസ് മുതലേ ഞാൻ ശ്രമിക്കാറുണ്ട് അവളെ ചെറിയ ചെറിയ വാക്കുകൾ കാണിച്ച് അവളോടിത് വായിക്കാൻ പറയുവായിരുന്നു പിന്നെ കുറച്ചായപ്പോൾ ഓരോരോ സെൻ്റെൻസ് കാണിച്ചവളെ വായിപ്പിക്കും അങ്ങനെ ചില ദിവസം അങ്ങനെല്ല ഞാൻ ചില ഇരുത്തി മെനക്കെട്ട് അത് വായിച്ച് കൊടുക്കും ആ വായിക്കാൻ പറ്റാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞ് കൊടുത്ത് വായിക്കും ഇപ്പോൾ അവൾ നല്ല വൃത്തിയായിട്ട് വായിക്കുന്നുണ്ട് അവളത് മലയാളം നല്ല പോലെ കൈകാര്യം ചെയ്യുന്നുണ്ട് അത് എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആ മലയാളം കൈകാര്യം ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് ഞാനിവളെ ഈ പത്രം വായിപ്പിച്ച് പഠിപ്പിച്ചത് കൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അവൾക്കില്ല എന്നെനിക്ക് നന്നായിട്ട് മനസ്സിലായി അതിനാൽ പത്രം വായിപ്പിക്കാൻ അവൾ ഇപ്പമൊരു സാധനത്തിൽ വായിക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ചില വാർത്തകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാറുണ്ട് അവളെ കൊണ്ട് മാക്സിമം വായിപ്പിക്കാറുണ്ട് എനിക്ക് അവർക്ക് ഞാൻ വായിച്ച് കൊടുക്കുന്നു അതോണ്ടെനിക്കൊരു നല്ലൊരു സ ആത്മവിശ്വാസം സന്തോഷം ഉണ്ടവളത് കുഞ്ഞ് മുതൽ ക്ലാസ് മുതലേ വായിച്ച് കൊടുക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല രീതീല് മലയാളം കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊരു നല്ല വിശ്വാസം എനിക്കുണ്ട് അതിനെ കൊണ്ട് ഒത്തിരിയേറെ അറിവുകൾക്ക് ഈ അറിവുകളും കുഞ്ഞിന് കിട്ടുന്നുണ്ട് നമ്മളൊക്കെ ചിലപ്പം വായിക്കാൻ അവർ വായിക്കുന്നത് കൊണ്ട് നമ്മൾക്കവർക്ക് തെറ്റുകൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കൊണ്ട് നമുക്കും ആ വാർത്ത മനസ്സിലാവുകയും നമുക്ക് ആ വാർത്ത അറിയാനും സാധിക്കുന്നുണ്ട് പത്രം വായിക്കാൻ പ്പ കുട്ടികൾ അതോണ്ടെല്ലാ ദിവസവും രാവിലെ അവൾ സ്കൂളി പോവാൻ റെഡിയായി നിന്ന് കഴിഞ്ഞിട്ട് നമ്മളാ ഒരു കുറച്ച് സമയം എന്ത് ആയാലും കുഞ്ഞുങ്ങൾ വായിച്ച് കൊടുക്കുന്നുണ്ട് അത് വായിച്ച് കൊടുക്കും എല്ലാവരും അത് വായിച്ച് കൊടുക്കണമെന്നാണ് എൻറ്റൊരാഗ്രഹവും എല്ലാവരും വായിച്ച് കൊടുക്കാൻ ആ കൊടുത്തെങ്കിലേ കുഞ്ഞുങ്ങൾ മലയാളം കൈകാര്യം ചെയ്യാനും പഠിക്കത്തുള്ളൂ അവർക്ക് നമ്മുടെ ലോക കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിലെ കാര്യങ്ങളും നമുക്ക് അറിയാനും പറ്റത്തുള്ളൂ അത് ഏറ്റവും നല്ലൊരു അല്ലെങ്കിൽ ആദ്യമേ കുഞ്ഞുങ്ങൾ പഠിച്ച് തുടങ്ങേണ്ടത് ഈ മലയാള അക്ഷരമാണ് നമ്മുടെ മാതൃഭാഷ ആദ്യം പഠിക്കണം അതിനാൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമെന്ന് പറയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് പത്രം വായിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ പത്രം ഓരോ അക്ഷരങ്ങൾ വെച്ച് വായിച്ച് പഠിപ്പിച്ച് ഓരോ സെൻ്റെൻസുകളാക്കി വായിപ്പിച്ച് അങ്ങനെ വായിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ നല്ല രീതിയിൽ വായിക്കുകയും അതിനെ കുറിച്ചോരോ ചിത്രങ്ങൾ കാണുമ്പോൾ അവരൊക്കെ ആരാണെന്ന് മനസ്സിലാവാനും പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ പറയുമ്പോളായിരിക്കും നമുക്ക് മന്ത്രിമാരെ മുഖ്യമന്ത്രി ഒക്കെ അവർക്ക് മനസ്സിലാവാനും ഒക്കെ പറ്റുന്നത് അങ്ങനെ അതുകൊണ്ട് കുഞ്ഞുങ്ങളിതെല്ലാം കൈകാര്യം ചെയ്യാൻ പഠിക്കും ഓരോ കുഞ്ഞുങ്ങൾക്കിത് വായിക്കാനും മലയാള ഭാഷയെ കൈകാര്യം ചെയ്യാനും എഴുതാനും അക്ഷരങ്ങളും ചില്ലക്ഷരങ്ങളും എല്ലാം കൂട്ടിച്ചേർത്ത് വായിക്കാനും എല്ലാം പറ്റുന്നുണ്ട് അതെല്ലാം ഞാൻ പിള്ളേരെ ആ ഒരു നല്ല സന്തോഷത്തിലാണ് കുഞ്ഞുങ്ങൾ വായിക്കുന്നുണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ട് പേരും മലയാളം വായിക്കുന്നുണ്ട് ഞാൻ പ്രോത്സാഹിപ്പിപ്പിക്കുന്നുണ്ട് അവർക്ക് പറ്റാത്ത സ അത് ഞാനിതിപ്പോൾ ചിലപ്പോൾ വായിച്ചവരെ കേൾപ്പിക്കാറുണ്ട് എല്ലാ രീതീലും പത്രം കൈകാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് എനിക്ക് അതിയായൊരു ആത്മവിശ്വാസം സന്തോഷം ഉണ്ട് എല്ലാ കുഞ്ഞുങ്ങളെയും ഇങ്ങനെ മലയാളം വായിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കയും അത് വഴി അവർക്കറിവുകൾ കിട്ടാനും അവർക്ക് മാതൃഭാഷ കൂടുതൽ കൈകാര്യം ചെയ്യാനും സാധിക്കണം എന്നാണ് എൻ്റെയൊരു ആഗ്രഹം എല്ലാ കുഞ്ഞുങ്ങളും അങ്ങനെ പത്രങ്ങൾ വായിച്ച് ശീലിക്കണം അതൊരു ജീവിതത്തിൻ്റെ ഭാഗമായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കേം ചെയ്യുന്നു